സമൂഹത്തിലെ എല്ലാ കുട്ടികൾക്കും തുല്യ വിദ്യാഭ്യാസ അവസരങ്ങൾ ഉറപ്പാക്കണമെന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം അതിൽ ഒന്നാമത്തെ സംഭവം യഥാർത്ഥത്തിൽ ആവശ്യമുള്ള ആൾക്കാർക്ക് മാത്രം റിസർവേഷൻ എന്ന് പറയുന്നതാണ് സംവരണം എന്ന് പറയുന്നത് ആ ഒരു സമൂഹത്തിനല്ല ആ ഒരു വിദ്യാർത്ഥിക്ക് ആവശ്യമാവണം എന്നാണ് എൻ്റെ ഒരു നില നിലപാട് ഉദാഹരണത്തിന് മനുഷ്യരുടെ അല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ സാമ്പത്തിക നിലയും അല്ലെങ്കിൽ അവരുടെ സമൂഹത്തിലെ ഒരു വ്യവസ്ഥ അല്ലെങ്കിൽ ആവാസവും കണ് ക കണക്കാക്കിയിട്ട് വേണം നമ്മളിതിനെ ഈ വിദ്യാഭ്യാസ നയങ്ങൾ നടപ്പാക്കാൻ ഒരു ഈഴവ വിദ്യാർത്ഥി എന്ന് നമ്മള് വിചാരിക്കുന്ന ഒരാൾക്ക് കാലാകാലവും റിസർവേഷൻ അല്ലെങ്കിൽ ഒരു ലാറ്റിൻ വിദ്യാർത്ഥി അല്ലെങ്കിൽ അവന് കാലകാലവും ഈ പറയുന്ന റിസർവേഷൻ കൊടുക്കേണ്ട ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഓ ഒരു കുടുംബത്തിനെ നമുക്ക് ഉന്നമനത്തിലെത്തിക്കാം ആ കുടുംബത്തിനെ ഇല്ലെങ്കിൽ ഇതെന്നും ക സർക്കാരിനൊരു ബാധ്യതയാവും ഒപ്പം മറ്റുള്ള കുട്ടികളോട് ചെയ്യുന്ന അനീതിയുമാകും ഇന്ന് വാ വളരെ മികച്ച രീതിയിൽ പഠിക്കുന്ന ഒരു ജനറൽ കാറ്റഗറിയിലുള്ളൊരു വിദ്യാർത്ഥിയും അല്ലെങ്കിൽ തീരെ മോശമായി പഠിക്കുന്ന അൽപ്പം അല്പം പിന്നോക്ക ജാതിയിലെ ഒരു കുട്ടിയും ഉണ്ടെന്ന് വിചാരിക്കുക പക്ഷേ ഈ പിന്നോക്ക ജാതിക്കാരൻ ഒരു ലക്ഷാധിപതിയു ഈ മുന്നോക്ക ജാതിക്കാരൻ ഒരു ദരിദ്രനുമായി ദരിദ്രനുമാവാം അപ്പം ഇന്നത്തെ കാലത്ത് എന്താണ് സംഭവിക്കുന്നത് ഈ പിന്നോക്ക ജാതിക്കാരൻ അവന് പഠിക്കാനോ അല്ലേൽ അല്ലെങ്കിൽ അവൻ്റെ വീട്ടുകാർക്ക് അവന് പഠനത്തിനാവശ്യമായ സാഹചര്യം ഉണ്ടാക്കാനുള്ള എല്ലാ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും അവൻ പിന്നോട്ട് പോയൊരു വിദ്യാർത്ഥിയാണ് പക്ഷെ നമ്മുടെ സർക്കാരുകളുടെ എന്തുകൊണ്ടോ സംവരണത്തിൻ്റെ ഈ സുതാര്യത അല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യുന്നു ഈ പിന്നോക്ക ജാതിക്കാരനെ വീണ്ടും ഒരു ഒട്ടും പഠിക്കാത്തവനായിരുന്നെങ്കിൽ കൂടി ഏതെങ്കിലും മികച്ച കോളേജിൽ കൊണ്ടുപോയി അവനെ നിയമിക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവന് അവന് വെറുതെ അനാവശ്യമായ സവരണം കൊടുത്തൊണ്ടിരിക്കുകയാണ് പക്ഷെ ഈ മുന്നോക്ക ജാതിക്കാരനോ വളരെ നല്ല രീതി പഠിച്ചെങ്കിലും ഈ മറ്റുള്ളവരുടെ ഇത്ര കാറ്റഗറി ഓഫ് റിസർവേഷൻ എന്ന് പറയുന്നത് കൊണ്ട് മാത്രം അവൻ പിന്നിലോട്ടായിപ്പോവാണ് ചെയ്യുന്നത് പക്ഷെ ഇതിനൊരു മാറ്റം കാല എന്തെങ്കിലും ഉണ്ടാവണം അവരുടെ ജാതി വെച്ചെല്ലാം സർ സർക്കാര് ജാതിയെ അല്ല അവരുടെ കുടുംബ സാഹചര്യങ്ങളെ വെച്ചിട്ട് വിലയിരുത്തണം എന്നിട്ട് ഈ സാഹചര്യത്തിൽ നിന്ന് അവർക്ക് മാറാൻ എന്താണ് ചെയ്യാൻ പറ്റുക അത് ചെയ്യണം

ഇനി വീണ്ടും എൻ്റെ മകനും ഇതേ സാഹചര്യം സർക്കാര് ഉണ്ടാവും എന്ന് പറയുന്നത് കറക്റ്റായ ഒരു രീതി അല്ലെങ്കിൽ ശരിയായ ഒരു രീതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇനി അടുത്തിയൊരു വിദ്യാർത്ഥി സമൂഹത്തെയാണ് നമ്മൾ സർക്കാരുകൾ കണ്ടുപിടിക്കേണ്ടത് ഈ എല്ലാ കുട്ടികൾക്കും തുല്യമായ വിദ്യാഭ്യാസം നമ്മൾ ഉറപ്പായിട്ടും എത്തിച്ചേരണം അവൻ മുന്നോക്ക ജാതിയിലായിക്കോട്ടെ പിന്നോക്ക ജാതിക്കാലായിക്കോട്ടെ ഏത് ജാതിക ജാതി വെച്ചിട്ടുള്ള സ്കൂളുകൾ നിർത്തണം അതിന് പകരം അവനെ ഏത് ജാതിയിൽ ആയിട്ടുള്ളവനായിക്കോട്ടെ ഇന്ന് ഒരു ജാതി ഒരു മതമെന്ന് പറയുന്ന സമൂഹത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ് ഈ ജാതിക്കാർക്ക് ഈ സ്കൂൾ എന്ന് പറയുന്നതല്ല അപ്പം സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റും ഏത് ജാതിക്കാരനായാലും തുല്യത എല്ലാ സ്കൂളുകളിലും തുല്യത എന്ന് പറയുന്നത് ഉറപ്പാക്കണം അപ്പം എ അതിലുള്ള യഥാർത്ഥ ആവശ്യക്കാരെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പ്രധാനമായ കാര്യം ആ ആവശ്യക്കാരെ അവരുടെ സാമ്പത്തിക സ്ഥിതിയും അല്ലെങ്കിൽ സമൂഹത്തിലെ അവരുടെ അവസ്ഥയും വെച്ചിട്ട് തരംതിരിച്ചെടുക്കുക അതിന് വേണ്ട ഉന്നമനങ്ങൾ അവർക്ക് ചെയ്ത് കൊടുക്കുക അല്ലാണ്ട് വെറുതെ ഓരോ സമൂഹത്തിന് കാലകാലവും ഈ പറയുന്ന സംവരണ വ്യവസ്ഥകൾ നടത്തുന്നത് കൊണ്ട് മറ്റ് മറ്റു പല യഥാർത്ഥത്തിൽ ഈ അവസരങ്ങൾ ലഭ്യമാക്കേണ്ട വിദ്യാർത്ഥികൾ ആണ് യഥാർത്ഥത്തിൽ ഇത് കൊണ്ട് ബാധിക്കപ്പെടുന്നത്